ഹലോ ആ ആ മാഡം ഞാനേയ് ഒരു ലോണിന് വേണ്ടിയിട്ട് വിളിക്കുന്നത് ആയിരുന്നു

ആ അതെ അതെ നമുക്ക് ഒരു കോഴി ഫാം തുടങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു ആ നമുക്ക് ബൾക്കായിട്ട് തന്നെ തുടങ്ങാനാണ് അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ അക്കൗണ്ടില്ല നമുക്ക് എടുക്കാൻ എടുത്താൽ നമുക്ക് ലോണിന് ചെയ്യാൻ പറ്റുകയുള്ളു എന്നുണ്ടോ ആ ഓക്കെ അക്കൗണ്ട് എടുത്തോളാം എങ്ങനെ അഞ്ച് ശതമാനം അല്ലേ ആ ഓക്കെ വേണ്ടിവരുമല്ലേ അതുപോലെ നമുക്ക് കുടുംബത്തിലുള്ള ഒരാളെ തന്നെ വച്ച് ചെയ്യാൻ പറ്റുമോ പുറത്തു നിന്നുതന്നെ വേണം അല്ലെ ഓക്കെ നമ്മളിപ്പോൾ ഒരു പതിനഞ്ച് ലക്ഷമൊക്കെ മിനിമം നമുക്ക് ലോണ് വേണ്ടി വരും ആ ഓക്കെ നമുക്കപ്പോൾ ഏകദേശം എന്തോരം വേണ്ടിവരുമെന്ന് വല്ലതും പറയാൻ പറ്റുമോ കിട്ടുമല്ലെ ആ ഓക്കെ ഓക്കെ അപ്പോൾ നമുക്കിപ്പോൾ എവിടേക്കാണ് നിങ്ങളുടെ വയനാട്ടിൽ ബ്രാഞ്ച് ഉള്ളതെന്ന് ഒന്ന് പറയാൻ പറ്റുമോ ആ ഓക്കെ ഓക്കെ നമുക്ക് മാഡം ഇപ്പോൾ ഏത് ബ്രാഞ്ചിലാണ് ഉള്ളത് കല്പറ്റയാണല്ലേ അപ്പോൾ നമ്മൾ ഡയറക്ട് വന്നു കഴിഞ്ഞാൽ തന്നെ മാനേജറിനെ തന്നെ കാണണോ അതോ പുറത്തു നിന്ന് ആരെയെങ്കിലും കണ്ടാൽ മതിയോ ആ ഓക്കെ ഓക്കെ മാഡത്തിന്റെ പേരെന്തായിരുന്നു ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് എന്നത്തേക്ക് എത്ര നാളുകൊണ്ട് ഇത് ലോണ് പാസ്സാവും എന്തെങ്കിലും പറയാൻ പറ്റുമോ എത്ര നാളുകൊണ്ട് നമുക്ക് കിട്ടും എന്ന് ആ ഓക്കെ ഒരു മാസത്തിനുള്ളിൽ കിട്ടുമല്ലേ ഓക്കെ അപ്പോൾ പേപ്പേഴ്സെല്ലാം ക്ലിയർ ആണെങ്കിൽ നമുക്ക് പെട്ടന്ന് തന്നെ ചെയ്യാൻ പറ്റില്ലേ ആ ഓക്കെ അപ്പോൾ നമുക്ക് വീക്കെൻഡ് എങ്ങനെയാണ് അടവ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിന് തിരിച്ച് പേയ്മെന്റ് റീപേയ്മെന്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് മന്ത്ലി ആണോ അതോ വീക്കെൻഡ് ചെയ്യണ്ടിവരുമോ മാസമാണല്ലേ ഓക്കെ ആ ഓക്കെ ഓക്കെ മാസം ഓക്കെ ഓക്കെ അപ്പോൾ എത്ര നാളുവരെ നമുക്ക് ലോണ് ചെയ്യാൻ പറ്റും ആ ഓക്കെ ഓക്കെ മാക്സിമം മാക്സിമം അഞ്ച് കൊല്ലമാണോ ആ ഓക്കെ ഓക്കെ അപ്പോൾ ആ മാക്സിമം അല്ല നമ്മൾ നേരത്തെ അടച്ച് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻ്ററെസ്റ്റിൽ എന്തെങ്കിലും ഇത് കുറയുമോ അടവ് എന്തെങ്കിലും ആ കുറയുമല്ലേ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ഇൻ്ററെസ്റ്റ് കുറവുള്ളത് നിങ്ങളുടെ അടുത്ത് തന്നെ ആണെന്ന് തോന്നുന്നു അല്ലേ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ പിന്നെ ഞാൻ വരുമ്പം മേഡത്തിനെ കോൺടാക്ട് ചെയ്താൽ മതിയോ

ഓക്കെ എന്നാൽ മാഡം ഞാൻ വിളിച്ചിട്ട് വരാം